മലയാളത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ സ അമ്മയിൽ നിന്നാണ് പിന്നീട് പഠിച്ചത് എൻ്റെ സഹോദരങ്ങളിൽ നിന്നും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെയാണ് കൂടുതൽ മലയാളത്തിൻ്റെ ഭാഷകൾ ഞാൻ പഠിച്ചത് അക്ഷരങ്ങളും എല്ലാം പഠിച്ചത് പിന്നീട് അംഗൻവാടിയിൽ പോയപ്പോൾ എന്നെ അവിടുത്തെ രണ്ട് അധ്യാപകർ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച് തന്നു അങ്ങനെയാണ് മലയാളത്തിൽ ആദ്യാക്ഷരങ്ങൾ ഞാൻ പഠിച്ചത് മലയാളം പഠിച്ചതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുമായിട്ട് സംഭാഷണങ്ങൾ നടത്താനും എഴുത്തുകുത്തുകൾ നടത്താനും എഴുതാനും വായിക്കാനും പത്രങ്ങൾ വായിക്കാനും ടി വിയിൽ വരുന്ന വാർത്തകൾ വായിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു എല്ലാ കാര്യങ്ങളും അറിയുന്നതിനും അക്ഷരങ്ങൾ പഠിക് പഠിച്ചതുകൊണ്ട് എനിക്ക് സാധിച്ചു മലയാള അക്ഷരമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളുകളിൽ പഠിക്കുമ്പോഴും എല്ലാം മലയാളം അക്ഷരം എന്നെ പഠിക്കുന്നതിന് ഒത്തിരി സഹായിച്ചിരുന്നു മലയാളം എൻ്റെ മാതൃഭാഷയാണ് മലയാളം പഠിച്ചതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും ആശയവിനിമയങ്ങൾ നടത്തുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനും അറിവ് ലഭിക്കുന്നതിനും എല്ലാം സഹായിച്ചത് മലയാളം എൻ്റെ ഭാഷയാണ് മലയാളത്തിലൂടെയാണ് ഞാൻ ആശയവിനിമയം നടത്തുന്നത് മലയാളത്തിലൂടെയാണ് ഞാൻ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതും മറ്റുള്ളവർ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നതും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതും മലയാളം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലാതെ മലയാളം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും പഠിക്കാനും കേൾക്കാനും ചെയ്യാനും സാധിക്കുകയില്ലായിരുന്നു